ഞാൻ പൂന്തോട്ട പരിപാലനത്തിനായി ഉപയോഗിക്കുന്നത് മൺവെട്ടി വാക്കത്തി ചവറ് വരണ്ടി പൂക്കൾ നനയ്ക്കുന്ന പാത്രം എന്നിവയാണ് ഉപയോഗിക്കുന്നത് മൺവെട്ടി ആണെങ്കിൽ മണ്ണ് ഇളക്കി ചെടി നടാൻ ഉപയോഗിക്കുന്നു ചവറ് വരണ്ടി ആണെങ്കിൽ ചവറൊക്കെ വരണ്ടി മാറ്റി കളകൾ കളകൾ പറിച്ചു കളയാനും വാക്കത്തിയൊക്കെ ഉപയോഗിച്ച് ചെടികൾ മുറിക്കാൻ വാക്കത്തി ഉപയോഗിക്കുന്നു ചെടികൾ മുറിച്ച് മാറ്റാൻ ഉപയോഗിക്കും പിന്നെ തൂമ്പ തടമെടുക്കാനായിട്ട് തൂമ്പയെടുക്കും മണ്ണ് ഇളക്കി ചെടികൾ ക്ക് വളമിടാനും മൺവെട്ടി ഉപയോഗിക്കുന്നു മണ്ണ് നമ്മളെ ഇളക്കി ഇളക്കി കൊടുത്താലേ ചെടികൾ സമർദ്ധമായിട്ട് വളരുകയും അതിന് പൂവിടുകയൊക്കെ ചെയ്യുകയുള്ളൂ അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ ഇതൊക്കെയാണ് പിന്നെ ചവറ് വരണ്ടി ആണെങ്കിൽ നമുക്ക് അതിനകത്തെ ചവറെല്ലാം വരണ്ടി വരണ്ടി മാറ്റി അതിൽ അതിന് നല്ലവണ്ണം തടവെടുക്കാനും ഒക്ക പറ്റുകയൊക്കെ ചെയ്യും ചവറ് വരണ്ടി കൊണ്ട് അങ്ങനെ പിന്നെ കൈമാന്തി ഉണ്ട് കൈമാന്തി കൊണ്ട് നമുക്ക് കൈ അതിൻ്റെ ചെവിടൊക്കെ മാന്തി മാന്തി വേര് നല്ല പുതിയ വേര് വരാനും ഒക്കെ കൈ മാന്തി കൊണ്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്